പണ്ടുകാലത്തുള്ള കൃഷിപ്പണിയും ഇപ്പോഴത്തെ കൃഷിപ്പണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്നാമത് പണ്ടുള്ള പോലെ കൃഷിപ്പണി ഇപ്പം ഇല്ല ഈ വയലിലെല്ലാം പണിയെടുക്കാൻ ഒന്നും എല്ലാവർക്കും മടിയാണ് മറ്റുള്ള പണിക്കാണ് പോകുന്നത് വയലെല്ലാം നികത്തി മറ്റുള്ള ബിൽഡിംഗ് എല്ലാം ആക്കുന്നന്നേ എന്നാലും എല്ലാ സ്ഥലത്തും അങ്ങനെ എല്ലാ കൃഷിപ്പണി എടുക്കുന്നവരും ഉണ്ട് നമ്മൾ പണ്ടെല്ലാം ഒരു വയലിലെ ഞാറു നടുക അത് നെല്ലിന്റെ ആ പണി എടുക്കുന്നത് എല്ലാം പണ്ട് കാലത്തെല്ലാം സ്ത്രീകളാണ് ആ പെണ്ണുങ്ങളാണ് ആ പണിയെല്ലാം ചെയ്തു വരുന്നത് അത് നിലം നിലമുഴുതുന്നത് കാളവണ്ടി ഉപയോഗിച്ചിട്ടാണ് അ ആ സമയത്തെല്ലാം അത് കാളവണ്ടിയാണുള്ളത് പണ്ടുകാലങ്ങളിൽ പക്ഷേല് ഇന്ന് അതൊന്നുമല്ല കാള കാളവണ്ടിക്ക് പകരം ട്രാക്ടർ അതൊരു പുരോഗതിയാണ് അതുകൊണ്ട് എന്ത് കാളവണ്ടിയെക്കാളും വേഗത്തിൽ നിലം ഉഴുതാൻ ട്രാക്ടറിന് കഴിയും ഓ ഒരു നല്ല നല്ല കാര്യമാണ് നല്ലൊരു കണ്ടുപിടിത്തവുമാണിത് പിന്നെ ഈ അത് കഴിഞ്ഞിട്ടുള്ള ഞാറ്റു നടൽ അതെല്ലാം ഈ പെണ്ണുങ്ങമാർ ചെയ്യുന്നൊരു പണിയാണ് അതിനൊന്നും മെഷീനും കാര്യങ്ങളോ ഒന്നും അത് കൊയ്ത്ത് ഇതിനൊന്നും വേറെ ഒരു മെഷീനും കാര്യങ്ങളും ഇല്ല എല്ലാം നമ്മളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ അവരുടെ ജോലിയും അന്ന് ഇതുപോലെ മറ്റുള്ള ഷോപ്പുകളിലൊന്നും അങ്ങനെയൊന്നും ജോലിയില്ല അപ്പോൾ ഈ കൃഷിപ്പണി തന്നെയാണ് ചെയ്യുന്നത് ഈ പെണ്ണുങ്ങൾ ഞാറ്റ് നട്ട് അത് അത് നെല്ലായി അത് കൊയ്ത്ത് ഇങ്ങനെയുള്ള മെതിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഇവർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിവസമാകും ഒരുപാട് ദിവസം കൊണ്ടാണ് ഇവർ കൈകൊണ്ട് ചെയ്യുന്നതല്ലേ മെഷീൻ പോലെയല്ലല്ലോ ഒരുപാട് ദിവസമെടുത്തിട്ട് ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന പണി ഇന്നത്തെ കാലത്ത് മെഷ്യ ഇതിനുവേണ്ടി പല മെഷീനും വന്നിട്ടുണ്ട് അപ്പം അത് പെട്ടെന്ന് ചെയ്തു തീർക്കും ഈ ട്രാക്ടർ മാത്രമല്ല നമ്മൾ കൊയ്ത്തിന് മെതിയുന്നതിന് ഇയിനെല്ലാം ഉള്ള ആധുനിക സൗകര്യം ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സമയം സമയവും ലാഭിക്കാം ഞമ്മക്ക് കൃഷിപ്പണി എടുക്കുന്ന ആൾക്ക് പൈസയും ലാഭിക്കാം നമ്മൾക്ക് നമ്മൾ ഇന്ന് ഒരുപാട് മടിയാണ് നമുക്ക് കൃഷി ചെയ്യാൻ എന്നാലും പാലക്കാട് പോലത്തുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ബസ്സിലെല്ലാം പോകുമ്പോൾ കാണുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ കണ്ടുപിടിത്തങ്ങളും ഈ ഈ കാറ്റ് ഇത് നെല്ല് മെതിക്കുമ്പോൾ ഉള്ള അത് അതിന്റെ തൂളി എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഫാൻ ഉപയോഗിക്കുന്നത് അതെല്ലാം പോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ കറ്റ കെട്ടുന്നത് ഇങ്ങനെയെല്ലാം ഒരു മെഷീനും കണ്ടിട്ടുണ്ട്